ഞാന് എല്ലാ ദിവസവും കാണുന്നത് തയ്ക്കുന്നതിനേക്കുറിച്ചാണ് തൈക്കുന്ന നല്ല ഭംഗിയുള്ള തയ്യലുകളെല്ലാം ഞാൻ പിന്തുടരും ഹാൻറ്റീക്രാഫാണെനിക്കേറ്റവും ഇഷ്ടം കൈകൊണ്ട് തൈക്കുന്നത് ഓരോ ഡിസൈൻ ഞാൻ കൊടുക്കാറുണ്ടത് കണ്ടിട്ട് അത് കാണുമ്പോൾ അതേപോലെ വർക്ക്യ്യാനായിട്ടുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻ പിള്ളാർടുടുപ്പുകളിലും വല്യവർടുടുപ്പുകളിലും സാരിയിലും ചുരിദാരിലൊക്കെ അതുപോലതന്നെ ചെയ്യാറുണ്ട് അത് കാണാൻ അത് ചെയ്തുകഴിയുമ്പോള് സംതൃപ്തി തോന്നാറുമുണ്ട് ഓരോ ക്രാഫ്റ്റും കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതുചെയ്യാനുള്ള ആഗ്രഹം ഒത്തിരി ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തുകൊടുക്കുന്നത് നല്ല നല്ല നല്ല ക്രാഫ്റ്റുകള് കാണുമ്പോൾ അതുപോലെതന്നെ ചെയ്യാനായിട്ട് അതിന്റെ ഓരോ സാധനങ്ങളും മേടിച്ച് ഞാനതുപോലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അത് വിജയിക്കാറുമുണ്ട് അത് ഞാനുണ്ടാക്കി ആവശ്യക്കാർക്ക് കൊടുക്കാറുമുണ്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്നെനിക്കിഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് കൊടുക്കാറുമുണ്ട് അവര് അതിനെക്കുറിച്ച് നല്ലഭിപ്രായം പറയാറുണ്ട് ആവശ്യ ചില സമയത്ത് എനിക്ക് നല്ല വർക്ക് ചെയ്തുകൊടുത്താൽ നല്ല സം സമ്പാദ്യ ചെറിയൊരു സമ്പാദ്യവും അതിൽ നിന്ന് ലഭിക്കാറുണ്ട് ആ മാസവരുമാനം എനിക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട് അത് കാണുമ്പോൾ അത് അങ്ങനെ ചെയ്ത് കൊടുത്തുകഴിയുമ്പോൾ സംതൃപ്തി തോന്നാറുമുണ്ട്